ജീവിതത്തില് കായിക വിനോദങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം വളരെയധികം ഇമ്പോട്ടന്സ് ഉള്ള ഒരു കാര്യമാണ് കായിക വിനോദങ്ങൾ എന്നുള്ളത് കാരണം ഇപ്പോൾ ഇപ്പോള്തന്നെ നമുക്ക് എടുത്താൽ സാധിക്കും ഒരു നൂറില് എൺപത്തി ഒന്ന് ശതമാനവും ആള്ക്കാര്ക്കും ഡയബറ്റിസ് ഉണ്ട് ഇതിനെല്ലാം കാരണം നമ്മള് കായിക വിനോദങ്ങളില് ഏര്പ്പെടുകയില്ല എ ഏര്പ്പെടാത്തതാണ് ത സീ ശെരിക്കും നമ്മളാലോചിച്ച് കഴിഞ്ഞാൽ നമ്മള് ശെരിക്കും വര്ക്ക് ചെയ്യുന്നില്ല ചെ ഇപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പഴാണെങ്കില് പോലും അല്ലെങ്കില് നമ്മള് പല കാര്യങ്ങള് ചെയ്യുമ്പഴും പ നമ്മുടെ പഴമക്കാര് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവര് ഭയങ്കര ഹെല്ത്തി ഹെല്ത്തി ആണ് കായിക വിനോദങ്ങള് തന്നെ ഞാന് പറയുകയല്ല കായിക വിനോദങ്ങള് നമുക്ക് ഏര്പ്പെടാന് കുറച്ചും കൂടി ഇന്ററസ്റ്റിംഗ് ആയതുകൊണ്ടാണ് കായിക വിനോദങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പണിയെടുത്താലും നമ്മളെടുക്കുകയാണെങ്കില് നമുക്ക് അത്രയും രോഗങ്ങള് കുറഞ്ഞിരിക്കും ഓക്കെ നമ്മള് എല്ലാവരും തന്നെ ഇപ്പം വരുന്ന തലമുറയാണേൽ കൂടി കായിക വിനോദങ്ങള്ക്ക് കൂടുതല് മുന്ഗണന കൊടുക്കുന്നത് കാരണം രോഗങ്ങള് അത്ത് അത്രയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ രോ കായിക വിനോദങ്ങളിലേര്പ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് ശാരീരികമായും മാനസികമായിട്ടുള്ള ക്ഷമത വളരെയധികം വര്ദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ പല പലതരം ജീവിത ജ് ദൈനംദിന ജീവിത രോഗങ്ങള് അതായത് ഡയബറ്റിസ് കൊളസ്ട്രോള് പ്രെഷര് എന്നീ പല ജീ പല അനാവശ്യമായ രോഗങ്ങള് നമ്മുടെ പഴമങ്ങാര്ക്കാർക്കൊന്നും ഇങ്ങനത്തെ രോഗങ്ങള് പോലുവില്ല അതെന്താണ് അവര് അത്രത്തോളം അധ്വാനിക്കുന്നതാണ് ആ അധ്വാനം തന്നെയാണ് നമ്മൾ ഈ കായിക വ വിനോദങ്ങളിലൂടെ നമ്മൾ ഏർപ്പെടുത്തുന്നത് ഓക്കെ അവര് എന്താണോ ചെയ്യുന്നത് അത് നമ്മള് കായിക കായിക വിനോദങ്ങളിലൂടെ നമ്മളത് നമുക്ക് രസകരമായുള്ള രീതീയിൽ ചെയ്യണം എല്ലാവരും എല്ലാവരും തന്നെ പുതിയ തലമുറ പ്രത്യേകിച്ച് എല്ലാവരും തന്നെ കായിക വിനോദത്തിലേക്ക് ഇറങ്ങണം എന്നാണ് ഞാന് ആഗ്രഹിക്കുന്നത് കാരണം പല ദൈനംദിന ജീവിതങ്ങളും നമ്മള് നമ്മള് ഓ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതുപോലെതന്നെ ആ നമ്മൾ ഈ കായിക വിനോദങ്ങളിലേര്പ്പെട്ട് കഴിഞ്ഞാൽ കായിക വിനോദങ്ങള് ചെയ്യാതിരിക്കുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മള് ഇപ്പം അത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ നമ്മള് അമിതമായി കഴിക്കുക നമ്മള് വെറുതെ ഇരിക്കുകയാണ് അമിതമായി കഴിക്കുമ്പോള് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളിയല് ഫാറ്റ് അല്ലെങ്കില് നമ്മുടെ മ മ നമ്മള് കഴിച്ച് കൊണ്ട് ഇരിക്കുമ്പത്തേയ്ക്ക് നമുക്ക് അമിതമായി വരുന്ന ഫാറ്റ് ആ ഇങ്ങനെ ഡെപ്പോസിറ്റായിക്കൊണ്ടിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അമിതമായ ഫാറ്റ്കള് ഡെപ്പോസിറ്റായിക്കൊണ്ടിരിക്കിന്ന വഴി നമ്മളുടെ ബ്ലഡ് വെസലില് ഈ ഫാറ്റ് വന്ന് അടിയുകയും അതുപോലെതന്നെ ബ്ലഡ് വെസലിലൂടെ പമ്പ് ചെയ്യാന് പറ്റാതിരിക്കുകയും ചെയ്യും അപ്പോഴെന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊഴാണ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നീ അസുഖങ്ങളിലേക്ക് കാരണം നയിക്കുന്നതെന്ന് വെച്ചാൽ ദൈനം ദിന ജീവിതത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അം അപ്പോഴാണ് ഈ പ്രാധാന്യം ഈ കായിക വിനോദ ങ്ങളുടെ പ്രാധാന്യങ്ങള് വരുന്നത് നമ്മളെപ്പോഴും ഓടുകയും ചാടുകയും ചെയ്യുവാണെങ്കില് നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളെല്ലാം ദഹിക്കുകയും അതുപോലെതന്നെ ഇതിന്റെ എക്സ്ട്രാ ഫാറ്റുകളൊരിക്കലും ഇൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും നമ്മുടെ ബി എം ഐ അതായത് ബോഡി മാസ്സ് ഇൻഡെക്സ് എപ്പഴും നമ്മള് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിലേറ്റവും കൂടുതല് പങ്ക് വഹിക്കുന്നത് എന്ന് പറയുന്നത് ഈ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് കായിക വിനോദം എന്നില്ല ഫുട്ബോള് ബാഡ്മിന്റണ് അത്ലെറ്റിക്സ് അ സ്വിമ്മിംഗ് സ്വിമ്മിങാണ് ഏറ്റവും എഫക്റ്റീവ് ഫുട്ബോള് കളിക്കുമ്പഴും നമ്മള് എല്ലാ എല്ലാ ഫുള് ബോഡിയാണ് നമ്മള് വാർം ആകുന്നത് അതുപോലെതന്നെ ഇപ്പം വെ വരുന്ന ജനങ്ങളെ അല്ലെങ്കില് കുട്ടികളാണെങ്കില് അവര്ക്കും കൂടി എന്താണ് മാര്ഷൽ ആർട്സ് കുംഫു കരാട്ടെ അല്ലെങ്കിൽ കളരി ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മള് മു കൂടുതൽ മുന്ഗണന കൊടുക്കുവാണെൽ നമ്മളെപ്പഴും ഹെല്ത്തി ആയിട്ടിരിക്കും ഹെല്ത്തി ആയുള്ള ജൻറേഷന് വരണമെങ്കിൽ നമ്മള് കായിക വിനോദങ്ങള്ക്ക് മുന്ഗണന കൊടുക്കുക അതുപോലെതന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വരണം

കാരണം പല ജ ദൈനം ദിന ജീവിതത്തിനും കാരണം വ്യായാമ കുറവ് തന്നെയാണ് അതുപോലെതന്നെ ഏതൊരു സ്കൂളിലാണെങ്കില് പോലും മിനിമം ഒരാഴ്ച്ചയില് ഒരു മൂന്ന് പി റ്റി പിരീഡ് കൊടുക്കുക അത് കൃത്യവായ വ്യായാമം എന്താന്ന് പഠിപ്പിച്ച് കൊടുക്കുക ക്ലാസ്സുകള് കൊടുക്കുക അതുപോലെ തന്നെ കൃത്യായ വ്യായാമം ചെയ്യിക്കുക നമ്മള് ഏറ്റവും കൂടുതല് പ്രശ്നം കണ്ട് വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കായികം നമുക്ക് ഇത്ര അധികം ജനങ്ങൾ ഉണ്ട് ഇന്ത്യ ജന സാന്ദ്രതയില് അതുപോലെ തന്നെ ടോട്ടല് പോപ്പുലേഷനിൽ ഫസ്റ്റ് നിൽക്കുന്ന രാജ്യമാണ് എന്നിട്ടും നമുക്ക് ഒളിമ്പിക്സില് ഇത്രത്തോളം മെഡലുകൾ സാധിക്കാൻ വ നേടാന് സാധിക്കുന്നില്ല അതിൻ്റെ എറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്പോട്ട്സിന് അല്ലെങ്കില് നമ്മുടെ കഴിവുകൾ ജനറേറ്റ് ചെയ്യാൻ കളി കഴിവുകളും കഴിവുകൾ ഉണ്ട് എല്ലാവര്ക്കും കഴിവുകൾ ഉണ്ട് ആ കഴിവുകള് ഉയര്ത്തി എടുക്കാന് അല്ലെങ്കില് മുഴുവിപ്പിച്ച് വരാനുള്ള ഒരു ഇൻസെന്റീവ്സ് ഒരിക്കലും ഗവൺമെന്റ് കൊടുക്കുന്നില്ല ജി എത്രത്തോളം ജന സ്വാതന്ത്ര്യമുള്ള രാജ്യവാണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒടിമ്പിക്സിന് കിട്ടിയ മെഡല് എന്ന് പറഞ്ഞ പതിനേഴ് മെഡേലാണ് വിച്ച് ഈസ് ജെസ്സ് ഡിസാസ്ട്രസ് കാരണം ഇത്രയും അധികം പോപ്പുലേഷൻ ഉള്ള ഒരു ജി ഒ ഒ ഉള്ള ഒരു രാജ്യത്ത് ഈ മെഡലുകളല്ല കിട്ടേണ്ടത് ആള്ക്കാര് കൂടുതല് ഇവിടെ ഒരു രാജ്യ ഒരു രാജ്യത്തുവില്ലാത്ത ജനസംഖ്യയും ഉണ്ട് അതുപോലെതന്നെ നമുക്ക് ഇത്രത്തോളം കഴിവുകൾ ഉള്ള ആൾക്കാരും ഉണ്ട് ഇവര്ക്കൊന്നും കഴിവുകള് പ്രഹസ് പ്രകടിപ്പിടിക്കാതിരിക്കാൻ പാറ്റാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനുള്ള ഇന്സന്റീവ്സ് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അപ്പം ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഇന്സന്റീവ്സ് കൂടുതല് കൊടുക്കുക ആള്ക്കാരെ കായിക വ്യായാമത്തിലേയ്ക്ക് അല്ലെങ്കില് എം ഏത്ത് അതിനെ ഫുട്ബോള് ക്രിക്കറ്റ് അതുപോലെ ഉള്ള കാര്യങ്ങള് ചെയ്യാനുള്ളൊര് ട്രെയിനിങ്ങുകള് കൊടുത്തോ കോച്ചിങ് കൊടുക്കാം അതിൽ നിന്ന് എബിലിറ്റീസ് ഉള്ള ആള്ക്കാരെ കണ്ട് പിടിക്കാം അവരെ കണ്വേർട്ട് ചെയ്യാം അവരെ കണ്വേർട്ട് ചെയ്ത് അവര്ക്ക് വേണ്ട കാര്യങ്ങള് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ വളര്ത്തിയെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യെണ്ടത് ഗവൺമെന്റിന് ഇങ്ങനൊരു ഭാവിയെ വാര്ത്തെടുക്കുന്നതിൽ വളരേയധികം പ്രാ വ വളരെയധികം പ്രാധാന്യം ഉണ്ട് കാരണം ഒരിക്കലും വളര്ന്ന് വരാന് പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിനുള്ള ഫിനാന്ഷ്യല് സ്റ്റെബിളിറ്റി ഇല്ലാത്തൊര് വീട്ടില് നിന്നാണെൽ ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും വരാന് പറ്റില്ല അതുകൊണ്ട് കഴിവുള്ള പിള്ളാരെ കൃത്യം കണ്ട് പിടിച്ച് ഇവിടെയാണല്ലൊ വുമണ്സിനാണേലും ഏറ്റവും കൂടുതൽ ഓപ്പര്ച്ചുണിറ്റീസ് സ്പോട്സിൽ ഓപ്പൻ ആണ് ഇവിടെ നല്ല റേഷ്യോയില് തന്നെ വുമൻസും ഉണ്ട് അവര്ക്കും വരാനുള്ള സാധ്യതകളും വളരെ പല കഴിവുകൾ ഉള്ള ആള്ക്കാരുണ്ട് കഴിവുള്ള ആള്ക്കാരെ തിരിച്ചറിഞ്ഞ് അവര്ക്ക് വേണ്ട ഇന്സന്റീവ്സ് കൊടുത്ത് അവിടെ ഗ്രോത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നേഷന് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം